കോഴികളെ ബാധിക്കുന്ന രോഗങ്ങളെന്ന് വെച്ചാൽ പനി വരും തൂങ്ങിനിൽക്കും പിന്നെ വസന്ത തുമ്മൽ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളാണ് സാധാരണ കാണുന്നത് അതിന് നമ്മൾ വീട്ടിൽ തന്നെ കുറേ കുരുമുളക് അരച്ച് വെള്ളം കൊടുക്കും വെളുത്തുള്ളി ഇതെല്ലാം കൂടെ കുരുമുളക് വെളുത്തുള്ളി പിന്നെ തുളസി ഒക്കെ ഇട്ട് വെന്ത് വെള്ളം കുടിപ്പിക്കും ആഹ് അങ്ങനെ ഒക്കെ ആകുമ്പോൾ കുറെയൊക്കെ അങ്ങ് മാറും അത്യാവശ്യം പിന്നെ കൂടുതലായിട്ടൊക്കെ നിൽക്കുവാണെങ്കിൽ നമ്മൾ മരുന്ന് മൃഗാശുപത്രിയിൽനിന്ന് അതിനുള്ള മരുന്ന് മേടിക്കും അത് കൊടുക്കും കുറച്ചുദിവസം ഒക്കെ നോക്കി കഴിയുമ്പഴത്തേക്കും ഓക്കെ ആകും നമ്മൾ ഓക്കെയാണെങ്കിലും ചില സമയങ്ങളിലുള്ള ഒരിത് അതേയുള്ളൂ അല്ലാതെ വലിയ കുഴപ്പം ഒന്നും ഇല്ല അങ്ങനെ ഒത്തിരി അങ്ങ് ഇതായിട്ട് ഒരു സീസൺ അനുസരിച്ചാ അങ്ങനെ വരുമ്പം മാത്രമേ ഉള്ളൂ ഈ തൂങ്ങി നിന്നേച്ചും ചത്തു പോകുന്നതൊക്കെ അല്ലാതെ വേറെ കുഴപ്പം ഒന്നും ഇല്ല അപ്പം അത്യാവശ്യം ഈ കുരുമുളക് വെള്ളവും കുരുമുളകും മഞ്ഞളും വെളുത്തുള്ളിയും എല്ലാം കൂടെ വെന്ത് വെള്ളം കൊടുക്കും പിന്നെ തുളസി ഇതെല്ലാം പനിക്കൂർക്ക ഇതെല്ലം കൂടെ അരച്ച് നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പരിപാടികൾ അങ്ങനൊക്കെയാ അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ കുറെയൊക്കെ പോവും മാറും മാറും എന്ന് വെച്ചാൽ മാറും ചെറുതായിട്ട് തുടങ്ങുന്നതെ ഉള്ളൂവെങ്കിൽ അതൊക്കെ മാറും അതല്ലെങ്കിലേ ഉള്ളൂ പിന്നെ മരുന്നു മേടിക്കേണ്ടി വരത്തുള്ളൂ മരുന്നു മേടിച്ചു കഴിഞ്ഞാൽ തൂങ്ങി ഒക്കെ നിൽക്കുന്ന ആണ് ചിലതൊക്കെയാണെങ്കിൽ മാറത്തില്ല അത് ചിലപ്പോൾ ചത്തുപോകുന്നായിരിക്കും എന്നാലും അങ്ങനെയൊന്നും കൂടുതൽ അങ്ങനെ വരാതിരിക്കാൻ നേരത്തെ തുമ്മല് അങ്ങനെയൊക്ക വരുമ്പോൾ തന്നെ ഈ കുരുമുളകും മഞ്ഞളും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട വെള്ളം കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഒത്തിരി കുറയും അങ്ങനെയുള്ള പിന്നെ അങ്ങനെയൊക്കെയുള്ളത് ഒക്കെ ചെയ്യാറുള്ളത് പിന്നെ ആരോഗ്യത്തോടെ നിർത്താൻ അവർക്ക് പോഷകം മേടിക്കും നമ്മൾ മേടിക്കുവല്ലോ കോഴിക്കുള്ള ഇത് അതെല്ലാം കൊടുക്കും പിന്നെ ഗോതമ്പ് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നത് ചോറ് അധികം കൊടുക്കല്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷേ ഞങ്ങള വീട്ടിൽനിന്ന് വരുന്ന വേസ്റ്റ് വരുന്നതൊക്കെ ചോറൊക്കെ വരുമ്പഴത്തേക്കും അതൊക്കെ കോഴിയൊക്കെ തിന്നുന്നത് കോഴിക്കുള്ള ഗോതമ്പുകളും അതും ഇതും ഒക്കെയാ കൊടുക്കാറുള്ളത് വലിയ കുഴപ്പം ഒന്നും വരാറില്ല പിന്നെ പിന്നെ ആഹ് പിന്നെ ഒത്തിരി നമ്മൾ വെളിയിലോട്ടൊക്കെ അധികം ഇറക്കെ വിടാതിരിക്കുകയാണെങ്കിൽ പിന്നെ ഒരു കുഴപ്പവും ഇല്ല പിന്നെ പച്ച പുല്ലുകളൊക്കെ തിന്നാനായിട്ട് വേണ്ടിയിട്ട് അങ്ങനെ ചെറിയ ഈ നാമ്പ് പുല്ലുകളൊക്ക ഉണ്ടല്ലോ അതൊക്കെ തിന്നുന്നത് നല്ലതാണെന്ന് പറയും അതൊക്കെ കൊത്തി തിന്നുവാണെങ്കില് വലിയ കുഴപ്പം ഒന്നും ഇല്ല കാരണം ഇവിടെ പനിക്കൂർക്കയും തുളസിയും ഒക്കെ ഞങ്ങൾ വളർത്തുന്നുണ്ട് അതിൻ്റെയൊക്കെ നാമ്പുകളൊക്കെ ഇങ്ങനെ കോഴി തിന്നുന്നതുകൊണ്ടേ വലിയ കുഴപ്പങ്ങളൊന്നും വരാറില്ല ആഹ് അങ്ങനെയൊക്കെ കുഴപ്പം ഇല്ലാതെ ഒക്കെ അങ്ങനെ പോകുന്നു ആരോഗ്യത്തോടെ